പച്ചക്കറികള് പഴവർഗങ്ങള് പലചരക്കുകള് ഭക്ഷ്യ വസ്തുക്കള് ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന മൊത്ത വ്യാപാര അല്ലെങ്കിൽ ചില്ലറ വിപണികൾ എന്നൊക്കെ പറയണത് പച്ചക്കറികൾക്കൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് നല്ല അധികം വില കൂടിയിട്ടുണ്ട് തക്കാളിക്കൊക്കെ നൂറു രൂപ നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ടായിരുന്നു അതിപ്പോ കുറഞ്ഞു ഇപ്പോ കുറഞ്ഞുപോയി ഇപ്പോ എൺപത് രൂപ എഴുപത് രൂപ അറുപത് രൂപയൊക്കെയാണ് എല്ലായിടവും വിറ്റു കൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ഷോപ്പിങ്ങിനെ പറ്റി പറയാണെന്നു വെച്ച് കഴിഞ്ഞാല് ഓൺലൈൻ ഷോപ്പിങ്ങിൽ സാധനങ്ങൾക്ക് നല്ല വില കുറവാണ് പ്രോഡക്റ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ എത്തും നമുക്ക് പണിയൊന്നുമില്ല മൊബൈൽ ഫോൺ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം സെലക്ട് ചെയ്യാം തെരഞ്ഞെടുക്കുക ക്യാഷ് അയച്ചു കൊടുക്കുക അപ്പൊ സാധനം നമ്മുടെ വീട്ടിലേക്ക് അവരുതന്നെ കൊണ്ട് തരും അതുകൊണ്ട് ഓൺലൈൻ ഷോപ്പിങ്ങിനെ പറ്റി ഒക്കെ വളരെ നല്ല അഭിപ്രായം ആണ് പക്ഷേ എന്താന്ന് വച്ച് കഴിഞ്ഞാല് നമുക്ക് പ്രത്യേകിച്ച് സേഫ്റ്റി ഒന്നും ഉണ്ടാവില്ല എല്ലാ കമ്പനികളും അങ്ങനെയല്ല ചില കമ്പനികളില് നമ്മൾ തെരഞ്ഞെടുത്ത് സാധനങ്ങള് വാങ്ങണ സമയത്ത് നമുക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടാവില്ല എന്നാലും മൊത്തത്തില് വളരെ നല്ല അഭിപ്രായം ആണ്